ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ ഫാമിലി ആയിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അത് ചിന്തിക്കുമ്പോൾ പോലും സന്തോഷം വരുന്നത് എൻ്റെ ഫാമിലിയെ പറ്റിയാണ് എൻ്റെ രണ്ട് മക്കൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒന്നാണത് ഈ ഫാമിലി മക്കള് അവരെ കുസൃതികളും കളിചിരികളും അത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവർ വഴക്ക് കൂടിയാലും അവരെ ചീത്ത പറഞ്ഞാലും അവർ നമ്മുടെ അടുത്തേക്ക് അമ്മ എന്നു വിളിച്ചു വരുന്നത് ഭയങ്കര ഒരു പ്രൗഡാണ് പിന്നെ അവർക്ക് വാങ്ങി കൊടുക്കുന്ന ഓരോ സാധനങ്ങളും അവരുടെ ടോയ്സാണെങ്കിലും അവർ ആവശ്യപ്പെട്ടിട്ട് നമ്മൾ വാങ്ങി കൊടുക്കുന്ന ഒരോ സാധനങ്ങളും അവർ എത്ര സന്തോഷത്തോടു കൂടി അത് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം അത് കാണുമ്പോൾ നമുക്ക് ഈ ലോകത്ത് വേറെ ഒന്നും വേണ്ട അത്രക്കും സന്തോഷമാണ് പിന്നെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ എന്തിനും ഏതിനും നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് അത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒന്നാണ് മക്കളെ ഒരുക്കുന്നതും അവരെ സ്കൂളിൽ വിടുന്നതും അവരായിട്ട് ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് സന്തോഷം തരുന്നതാണ് അവരില്ലാതെ വീട്ടിൽ നിൽക്കുമ്പോൾ ഭയങ്കര ബോറടിയാണ് അവർ സ്കൂൾ വിട്ട് വരുന്നത് വരെ നമുക്ക് ഒരു ഉണർവില്ല അവർ വന്നു കഴിയുമ്പോൾ ആണ് വീട് വീണ്ടും ഒരു വീടാകുന്നത് സന്തോഷം ഉണ്ടാകുന്നത് അവരുമായിട്ട് പുറത്തു പോകുന്നതും അവരുമായിട്ട് കറങ്ങുന്നതും ഫുഡ് കഴിക്കുന്നതും അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ജീവിതത്തിൽ സന്തോഷിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അവരുള്ള ടൈമിലാണ് പിന്നേന്ന് വച്ചാൽ അവർ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കൂടുമ്പോൾ തന്നെയാണ് ഞങ്ങൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് ഓരോരുത്തരും ഒറ്റക്കാകുമ്പോൾ ആർക്കും ഒരു സന്തോഷം ഉണ്ടാവുന്നില്ല ഞങ്ങൾ നാലു പേരും ചേരുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത് മക്കളാണ് ഭർത്താവാണ് ഫാമിലിയാണ് എല്ലാം കൂടുമ്പോഴാണല്ലോ നമ്മുടെ ഫാമിലി ഒന്നിക്കുന്നത് അപ്പോഴാണ് നമ്മളെ ജീവിതം എത്ര സന്തോഷത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത് അഉണ്ട് എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് എൻ്റെ ഫാമിലിയാണ്